പാചകത്തിന് മുൻപ് നമ്മൾ എന്തു പാചകം ചെയ്യുകയാണെങ്കിലും അതിനാവശ്യമായ എല്ലാ സംഭവങ്ങളും ചെയ്തു വച്ചിട്ടാണ് പാചകം തുടരുന്നത് തുടങ്ങുന്നത് ഇപ്പം പച്ചക്കറി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ വിഭവങ്ങളും അരിഞ്ഞ് വയ്ക്കുന്നു കുടിവെള്ളം ചൂടാക്കി വയ്ക്കുന്നു അതിനുശേഷമാണ് പാചകത്തിലേയ്ക്ക് കടക്കുക സാമ്പാർ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കഷണങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുക ഒരുക്കി കഴുകി വയ്ക്കുക അതിനുശേഷം പൊടി ചൂടാക്കാം പൊടി ചൂടാക്കിയത് പിന്നെ പുളി പിഴിഞ്ഞ് വയ്ക്കാം എല്ലാം ചെയ്തതിനു ശേഷം വേവിച്ച് പൊടിയിട്ട് അതെല്ലാം വെന്തതിനു ശേഷം പുളി പിഴിഞ്ഞ് കടുക് പൊട്ടിച്ച് വറവിട്ട് മാറ്റുന്നു പിന്നെ പാചകം ചെയ്യുന്നതിനു മുന്നേ അടുക്കളേയും പാചകം ചെയ്യുന്ന സ്ഥലവുമെല്ലാം വൃത്തിയാക്കുന്നു ചെയ്തതിനു ശേഷം എല്ലാം നല്ല ക്ലീൻ ചെയ്ത് ഒരുക്കുന്നു നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നു